എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ കുടുംബം തന്നെയാണ് കാരണം എന്തിനും ഏതിനും കൂടെ നിക്കുന്ന എൻ്റെ പാരൻസ് എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പിന്നേന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ബലഹീനതാന്ന് പറയുന്നതും എൻ്റെ ഇമോഷൻസാണ് കാരണമെന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ ഇമോഷൻസിന് പിടിച്ചു കെട്ടി നടക്കാൻ അറിയുന്ന ഒരാൾ അല്ല കാരണം എന്തുണ്ടെങ്കിലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക കരയുക ഇതെല്ലാം യൂഷ്യലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അതിനൊന്നും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ച് നിൽക്കാൻ അറിയത്തില്ല അപ്പം ഞാൻ അതെല്ലാം ഓൺ ദ സ്പോട്ടില് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് എൻ്റെ കണക്ഷൻസ് അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്താണേലും അല്ലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആണേലും ഒരുപാട് മിസ് ബിഹേവ് ചെയ്തൂന്ന് പറഞ്ഞ് കുറേ പ്രോബ്ലംസ്ണ്ടായിട്ട്ണ്ട് എനിക്ക് എൻ്റെ ഇമോഷൻസിനെ പിടിച്ചു വയ്ക്കാൻ അറിയില്ലത്തതാണ് എൻ്റെ ഏറ്റവും വലിയ അതിപ്പോൾ സങ്കടം ആണേലും ദേഷ്യമാണേലും എന്ത് ഫീലിംഗ്സ് ആണേലും എനിക്ക് തന്നെ പിടിച്ചു വെക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ ഓവർ റിയാക്ട് ചെയ്യുകയൊ അല്ലേൽ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എൻ്റെ ഒരു ബലഹീനതന്നെയാണ് പിന്നേന്ന് പറയുന്നത് എൻ്റെ ശക്തി കാരണം എനിക്ക് എന്തൊരു പ്രോബ്ലം വന്നാലും അവിടെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് എൻ്റെ ഹസ്ബൻഡ് അമ്മ അച്ഛൻ അവരെല്ലാവരും തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ന്ന് പറയുന്നതും എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്ന്ന് പറയുന്നതും ഈ രണ്ടു കാര്യങ്ങളാണ് ഫാമിലീന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ന്ന് പറയുന്നത് അതുപോലെ എൻ്റെ നെഗറ്റീവ് സൈഡെന്നു പറയുന്നത് എൻ്റെ ഇമോഷൻസ് തന്നെയാണ്